ഹലോ അതേ ഞാൻ അടുത്ത ദിവസം ബാംഗ്ലൂരിൽ നിന്ന് പോകാനായിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ആ പാസഞ്ചർ ആണ് ആ പിന്നെ പ്ര പ്രൈവറ്റ് ബസ് നമ്മുടെ ഗോഡ്ജി എന്നും പറഞ്ഞിട്ട് ടൂറിസ്റ്റ് ബസ്സിൽ പോകാനായിട്ട് എന്നാ റിസർവേഷൻ ചെയ്തിരുന്നതായിരുന്നു അപ്പം ഞാൻ അടുത്ത എന്നാ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ടുള്ള ഡേറ്റിനായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ സീ അപ്പോൾ സീറ്റ് നമ്പർ പതിനെട്ട് പറഞ്ഞാണ് ബുക്ക് ചെയ്തത് അപ്പം വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് എന്നാ കിട്ടിയിരിക്കുന്നത് എന്നാ സെൻട്രൽ സീറ്റ് ആണ് സെൻട്രൽ സീറ്റിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു യാത്രാസുഖം പോരാ യാ നമുക്കൊരു നമ്മൾ ഉദ്ദേശിച്ചത് നമ്പർ വരുമ്പോഴത്തേക്കും നമുക്ക് സൈഡ് സീറ്റ് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്തത് പക്ഷേ നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് സെൻറർ സീറ്റ് ആണ് അപ്പോൾ ആ സീറ്റ് ഒന്ന് മാറ്റി നമുക്കൊരു സൈഡ് സീറ്റ് ആക്കി തന്നുകഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും എന്നാൽ

ആ അതെയതെയതെ അത് എന്നാ സീറ്റ് നമ്പർ വെച്ച് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഒരു സൈഡ് സീറ്റ് കിട്ടും എന്നുള്ള ആ ഒരു ധാരണയിലാണ് ചെയ്തത് പക്ഷേ അത് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് സൈഡ് സീറ്റ് അല്ല സെൻട്രൽ സീറ്റ് ആണെന്ന് മനസ്സിലായത് ഓ ഹോ ആ അങ്ങനെ ആ അതുകാരണം ആ ഒന്ന് സാർ മാക്സിമം ശ്രമിക്കണം കാരണം നമുക്ക് എന്നാ

ആ ആ ഓക്കെ ഓക്കെ ഓക്കെ അതെ എന്തായാലും എന്നാ സാറിനെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്നത് ചെയ്യ് ഇല്ലെന്നുണ്ടെന്ന് വരുകിൽ ഓ ശരി ഓ ഓക്കെ സാറേ എന്നാൽ താങ്ക് യു താങ്ക് യു എന്നാൽ ശരി എന്നാൽ ഓക്കെ എന്നാൽ താങ്ക് യു ഓക്കെ ഓക്കെ ശരി എന്നാൽ ഓക്കെ ബൈ സീ യു